കുട്ടികള് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഔട്ട്ഡോര് ആയിട്ട് അധികം അധികം കുട്ടികളും കളിക്കാറില്ല എല്ലാരും ഇന്ഡോര് ആക്റ്റിവിറ്റീസ് ഇപ്പോൾ ഡിജിറ്റല് ലോകമായത് കൊണ്ട് മൊബൈല് ഫോണുകളിലും ലാപ്ടോപ്പുകളിലും സിസ്റ്റങ്ങളിലും അവർ ഗിവ് വീഡിയോ ഗെയിംസ് വീഡിയോ ഗെയിംസില് ഇപ്പോൾ ഒരുപാട് കുട്ടികള് അഡിക്റ്റഡ് ആണ് അങ്ങനെ ഇരുന്നു നമ്മള് വീട്ടില് തന്നെ ഇന്ഡോര് ആയിട്ട് ഇരുന്നു അവർ ഫുള്ടൈം അവർ അവരുടെ കണ്ണിനു സ്ട്രെയിന് കൊടുത്ത് ഇങ്ങനെ വീഡിയോ ഗെയിം കളിക്കുമ്പോള് അവരുടെ മെന്റല് ഹെല്ത്തിനും അവരുടെ ബോഡി അവരുടെ ഇപ്പം കുട്ടികള്ക്ക് ഇപ്പം ഓടിനടക്കേണ്ട സമയത്ത് ഇതേപോലെ ഇരുന്നു കളിക്കുമ്പോൾ അവരുടെ ബോഡി അവര്ക്ക് എക്സസൈസ് വേണ്ട രീതിയില് വേണ്ട രീതിയിലുള്ള എക്സസൈസ് അവരുടെ ബോഡിയില് നടക്കാറില്ല ഓട്ടവും ചാട്ടവും നടക്കാറില്ല ഒരുപാട് രീതിയിലുള്ള ഡിസീസുകള് കുട്ടികള്ക്ക് ഉണ്ടാകാറുണ്ട് ഇതേപോലെ അവരുടെ കണ്ണിനു സ്ട്രെയിന് കൊടുത്ത് കണ്ണിന്റെ കാഴ്ച വരെ നഷ്ടപ്പെട്ടു കാഴ്ച മങ്ങാനുള്ള ചാന്സ് ഉണ്ട് അവർ കണ്ണാടി യൂസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ മിക്കവരും ഇപ്പം മൊബൈല് ഫോണിലെ ഗെയിമുകളിലും ഒരുപാട് ഗെയിമുകളില് അഡിക്റ്റ് ആണ് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ എന്നാലും